ശശിയേട്ടാ നിങ്ങളോട് ഞാന് പത്ത് മണിക്ക് എത്താന് വേണ്ടി പറഞ്ഞിട്ടില്ലെ ഇപ്പം സമയം പതിനൊന്ന് മണിയായി എനിക്ക് പന്ത്രണ്ട് മണിക്കാ ബസ്സ് എന്റെ കാര്യങ്ങളൊന്നും നടക്കൂല്ലല്ലോ നിങ്ങൾ വരുന്നില്ലെങ്കിൽ വരൂല്ല വേറെ വണ്ടി ആക്കി തരേണ്ടെയല്ലേ എന്റെ എല്ലാ കാര്യവും പിന്നെ ഇതായില്ലേ മിസ്സായില്ലേ അതുകൊണ്ട് നിങ്ങൾ പിന്നെ വരൂല്ലെങ്കില് വരൂലാന്ന് പറയണ്ടെ അല്ലെ വേറെ വണ്ടി പിടിച്ചിട്ട് പൊയിക്കൊള്ളാമായിരുന്നു നിങ്ങളോട് പത്ത് മണിക്ക് വരാൻ പറഞ്ഞാൽ നിങ്ങൾ പത്ത് മണിക്ക് വരണ്ടെ പതിനൊന്ന് മണിക്ക് നിങ്ങൾ വന്നാൽ പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും സ്ഥലത്ത് എത്താന് പറ്റൂലാല്ലോ എന്റെ കാര്യങ്ങളെല്ലാം എല്ലാം പോയില്ലെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ അതു കൊണ്ട് ഞാന് നിങ്ങൾക്ക് പൈസ തന്ന പൈസ എനിക്ക് തിരിച്ചു തരണം തരൂല്ലാന്നാ അത് എനിക്ക് നഷ്ടപ്പെടേണ്ട ആവശ്യമില്ലാല്ലോ നിങ്ങൾ വരാഞ്ഞിട്ടല്ലേ നിങ്ങൾ എന്റെ പൈസ തന്നേ തീരു ഞാൻ ഒഴിവാക്കൂല പൈസ പൈസ തരണം നിങ്ങൾ പൈസ തരൂലാന്നാ അതെന്താ പാക്ക് നിങ്ങൾ തരൂലാന്ന് പറയുന്നേ ഞാന് നിങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ വാങ്ങുകയും ചെയ്യും നിങ്ങളെ തെറ്റല്ലെ നിങ്ങൾ വരാഞ്ഞിട്ടല്ലെ ഞാന് നിങ്ങളോട് പത്ത് മണിക്ക് വരാന് വേണ്ടി പറഞ്ഞതല്ലേ നിങ്ങൾ പതിനൊന്ന് മണിക്ക് വന്നാൽ എന്റെ തെറ്റല്ലാല്ലോ എനിക്ക് പന്ത്രണ്ട് മണിക്കാ ബസ്സ് ബസ്സിനു പോകാന് വേണ്ടി ഞാന് ന്ന് നിങ്ങളോട് രാ തലേന്നെ ഏൽപ്പിച്ചതല്ലേ ആ സമയത്ത് നിങ്ങൾ വരേണ്ടതല്ലേ അ ഞാനെന്ത് ചെയ്യാനാ വണ്ടിയില്ലാത്തത് കൊണ്ടല്ലേ ഞാന് നിങ്ങളെ തലേന്നേൽപ്പിച്ചത് നിങ്ങൾ വരേണ്ടതല്ലേ അവിടെ പൈസയും മേടിച്ച് വെച്ചിട്ട് പത്ത് മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പതിനൊന്ന് മണിക്കാ വരികാ നമ്മൾ റോഡിലോട്ട് പോകുമ്പോൾ അവിടെ ഇവിടെയെല്ലാം തടസ്സങ്ങളും ബ്ലോക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാവൂല്ലേ അതുകൊണ്ടല്ലേ നിങ്ങളോട് പത്ത് മണിക്ക് വരാന് പറഞ്ഞത് പന്ത്രണ്ട് മണിക്ക് പോ പോകേണ്ടതുകൊണ്ട് നിങ്ങൾ പതിനൊന്ന് മണിക്ക് വന്നാൽ ഞാൻ എന്റെ കുറ്റമല്ലല്ലോ

ഞാന് നിങ്ങളോട് പത്ത് മണിക്ക് വരാന് പറഞ്ഞിട്ട് നിങ്ങൾ പതിനൊന്ന് മണിക്ക് വന്ന് അതിലിപ്പം എനിക്കൊന്നും ചെയ്യാന് കഴിയില്ലല്ലോ എന്റെ കാര്യങ്ങൾ ഒന്നും നടന്നിട്ടും ഇല്ലല്ലോ ഇപ്പോൾ പന്ത്രണ്ട് മണിക്ക് എത്തേണ്ടത് ഞാൻ പത്ത് മണിക്ക് നിങ്ങളെ ഏല്പ്പിച്ചപ്പോൾ നിങ്ങൾ പതിനൊന്ന് മണിക്ക് വന്നു എനിക്ക് പന്ത്രണ്ട് മണിക്ക് എത്താനും പറ്റൂല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ നഷ്ടപ്പെടണ്ട ഞ എനിക്ക് നഷ്ടപ്പെടാന് കഴിയില്ല എന്റെ പൈസ തിരിച്ചു തന്നെ നിങ്ങൾ പൈസ തിരിച്ചു തന്നെ പറ്റു തരൂലാന്നോ അത് എങ്ങനെയാ നിങ്ങളങ്ങനെ പറയാ നിങ്ങൾ ഓടീട്ടും ക പോയിട്ടും ഒന്നും ഇല്ലല്ലോ നിങ്ങൾ പൈസ തന്നിട്ടില്ലെങ്കില് അതിനുള്ള പ വേണ്ട പണി ഞാന് എടുക്കും ആ അല്ലാണ്ട് പിന്നെ നിങ്ങൾ ഓടാണ്ട് നിങ്ങൾ പൈസ മേടിച്ച് വെച്ചിട്ട് അതിന്റെ കാര്യം ഇല്ലല്ലോ നിങ്ങടെ അടുത്തല്ലെ തെറ്റ് ഞാന് നിങ്ങളോട് എന്താ പറഞ്ഞത് പത്ത് മണിക്ക് വരണമെന്ന് പറഞ്ഞ് എനിക്ക് പന്ത്രണ്ട് മണിക്കാ ബസ്സ് പന്ത്രണ്ട് മണിക്ക് പോയാലെ എനിക്ക് എന്റെ കാര്യങ്ങളെല്ലാം നടക്കു എന്നെല്ലാം ഞാന് നിങ്ങളോട് പറഞ്ഞതല്ലേ അപ്പം നിങ്ങൾ പതിനൊന്ന് മണിക്ക് വന്നിരു വന്നാ വന്നാൽ പിന്നെ കാര്യങ്ങൾ നടക്കുമോ പത്ത് മണിക്ക് പോകേണ്ട എനിക്ക് അതുകൊണ്ട് എന്റെ പൈസ നിങ്ങൾ തിരിച്ചു തരണം തന്നേ തീരു തന്നില്ലാന്ന് അപ്പം തരൂലാന്ന് പറയല്ല് പൈസ തരണം ആ തന്നിട്ടില്ലെങ്കിൽ എനിക്ക് തന്ന പോലെ മേടിക്കാനും അറിയാം ആ നമുക്ക് പറയാം നിങ്ങൾ തരുണുണ്ടോന്ന് നോക്കാം എന്നിട്ട് നമുക്ക് പറയാം തരൂലാന്ന് നിങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞാലത് ശരിയാവില്ലല്ലോ ഞാന് പൈസ തന്നിട്ടുണ്ടെങ്കില് പൈസ ഞാന് നിങ്ങളോട് മേടിക്കുകയും ചെയ്യും പൈസ ഉണ്ടാക്കാനും അറിയാം പൈസ വാങ്ങാനും അറിയാം ആ നിങ്ങൾ തണ്ടെളക്കുവ ഒന്നും ചെയ്യണ്ട പിന്നെന്താ നിങ്ങളോട് പറഞ്ഞ സമയത്ത് വരണം അതുകൊണ്ട് നിങ്ങള്ക്ക് വരാനാകൂല എങ്കില് ആകൂല എന്ന് നിങ്ങൾ പറയണം ഞാന് വേറെ വണ്ടി പിടിച്ചിട്ട് പോവും അല്ലാതെ ഒരു കാര്യവും ഇല്ലാല്ലോ നിങ്ങൾ തലേന്നെ പൈസയും മറിച്ചിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ വരാണ്ടിരിക്കല് ശരിയല്ലാല്ലോ പന്ത്രണ്ട് മണിക്കല്ല പതിനൊന്ന് മണിക്കേലും വന്ന് കഴിഞ്ഞാ പന്ത്രണ്ട് മണിക്ക് പോകുന്നാള് എന്ത് ചെയ്യാനാ അതുകൊണ്ട് അത് കൊണ്ട് എനിക്ക് പിന്നെ നിങ്ങൾ പൈസ തരണം പൈസ തന്നിട്ടില്ലെങ്കിൽ ബാക്കി കാര്യം പറയാം ആ തരാമെന്ന് നിങ്ങൾ എന്നാ അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ പറയല്ലല്ലോ തരൂലാന്ന് നിങ്ങൾ എന്നോട് പൈസ മേടിച്ചിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തര നിങ്ങൾ തരണം എനിക്ക് ആ ബാക്കി നമുക്ക് അവിടെ വെച്ചിട്ട് പറയാം ആ നിങ്ങൾ പൈസ തരാണ്ട് എനിക്ക് അതെങ്ങനാ മേടിക്കണ്ടേന്ന് എനിക്കറിയാം ആ എന്നാൽ നമുക്ക് അവിടെ വെച്ച് കാണാം എന്നാ ശരി